പണ്ടുകാലങ്ങളിൽ ചെറിയ മൊബൈൽ ഫോണില് തുടങ്ങിയ കാര്യങ്ങള് ഇന്ന് ഇപ്പോളെത്തിനില്ക്കുന്നത് വലിയ സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും കീബോഡുകളിലൊക്കെയാണ് പണ്ട് ഒരാളെ സംസാരിക്കണമെങ്കില് അല്ലേ ആ ആളോട് നേരിട്ടു നമുക്കു കാണണമെങ്കിൽ നമ്മള് നേരിട്ട്പോയി സംസാരിക്കണമായിരുന്നു അല്ലെങ്കില് ആ നേരിട്ട് ആളുമായി ബന്ധപ്പെട്ട് ആവൊരു രീതീപ്പോവണായിരുന്നു ഇപ്പോള് അതിനെ സംബന്ധിച്ച് ഒരുവാട് വ്യത്യാസമുണ്ട് ഇപ്പോള് ഓരോരുത്തരുടെയും കയ്യിലിരിക്കണ സ്മാർട്ട് ഫോണുകള് വഴി അവരെ ബന്ധപ്പെടാം പെട്ടെന്ന് നമുക്ക് നേരിട്ട് കാണാം വീഡിയോ കോള് വഴി നേരിട്ട് കാണാം ഒരുപാട് എന്തുപറയാ ഒരുപാട് യൂസ്ഫുള്ളാണ് അതുപോലെതന്നെ പണ്ടുകാലങ്ങളിൽ ലാപ് കംപ്യൂട്ടറെന്നു പറയുന്നത് വലിയൊരു പെട്ടിപോലൊരു സാധനമായിരിന്നു ഇന്നപേക്ഷിച്ചിപ്പോള് ആ നമ്മുടെ കൈകുമ്പിളിൽ കൊണ്ടുനടക്കാം കൈകളിൽ ഏത് ബാഗിലും വെച്ച് എവിടെ വേണേലും കൊണ്ടുനടക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണിപ്പോള് കംപ്യൂട്ടറുപോലും മാറിയിരിക്കുന്നത് അതുപോലെതന്നെ ഇപ്പോള് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ഇപ്പോള് നമ്മുക്ക് അത്യാവശ്യം ഒരു പൈസ അടക്കണമെങ്കില് പണ്ടൊക്കെയെന്നു പറഞ്ഞാല് നേരിട്ട് ആ ആളുടെ വീട്ടില് കൊണ്ടുപോയി പൈസ കൊടുക്കണമായിരുന്നു ഇപ്പോള് ഒരു രൂപാ മുതല് ഇപ്പോള് എത്ര വലിയ തുകയാണെങ്കിൽപ്പോലും അത് നമ്മള്ക്ക് ഫോൺ വഴി അടക്കാൻ സാധിക്കും അതുപോലെതന്നെ ഒരുപാട് ഒരുപാടൊരുപാട് മാറ്റങ്ങള് ഇപ്പോള് നമ്മുടെ ഫോണില് പണ്ടു കാലങ്ങളിൽ ഫോണുംകൊണ്ട് നടക്കുമ്പോഴിപ്പോള് എല്ലാം പറയുവാണെങ്കില്പ്പോലും നമ്മുടെ പണ്ടുകാലങ്ങളിൽ പിള്ളാരെല്ലാം ഓടിനടന്നോണ്ടിരുന്നൊരു കാലഘട്ടത്ത് ഇപ്പോൾ ആ ഒരു ഫോൺ ഫോൺ കാരണം ഇപ്പോള് ഓരോ വീടുകളിലുംകൂടി എന്നാല് അതിനെപ്പറ്റി ഒരുപാട് പ്രയോജനമുള്ളൊരു കാര്യങ്ങളുണ്ടിപ്പോള് പല സ്ഥലങ്ങളില് അല്ല പല നാടുകളില് വെളിദേശത്തും എല്ലാം നാട്ടിലെല്ലാം പോയി കിടന്ന് സംസാരിക്കെണ്ടേ അല്ലേ അവടെപ്പോയി ജോലിചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലിരിന്നു തന്നെ ചെയ്യാം ഒരുപാട് പ്രയോജനം തരുന്നൊരു ഉപകരണമാണ് സ്മാർട്ട് ഫോണെന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ സ്മാ നമ്മുടെ ഓരോ ഫോണും അതുപോലെതന്നെ ഇപ്പോള് ചെറിയ ഫോണില് തുടങ്ങി ഇപ്പാദ്യമേ കീപാഡായിരുന്നു അതു കഴിഞ്ഞ് ആദ്യമേ വലിയ ഫോണായിരുന്നു അതെഴിഞ്ഞ് ചെറുതായി കീപാഡായി പിന്നെ പതിയെ ടച്ചായി സ്മാർട്ട് ഫോണായി അതുപോലെതന്നെ വാട്സപ്പ് നമ്മുടെ ഫോണിലെ ഇപ്പോള് മറ്റു വെളിനാശ് വെളിദേശത്തുള്ള ഒരാളാണെങ്കില്പ്പോലും ഏതു സമയത്തും ഒന്ന് വീഡിയോ കോളെയ്താല് ആയിടിയിടി അന്നേരം സംസാരിക്കാനും കാണാനുമെല്ലാം പറ്റും ഇപ്പോള് നമ്മുടെ ആവൊരു യൂണിറ്റി ഇപ്പോള് കൂടുംബജീവിതം നയിക്കുന്നൊരാള് പുറത്തുപോയിക്കഴിഞ്ഞാല് ആ ആൾക്ക് എപ്പോഴും കാണണ്ടത് ഭാര്യയും മക്കളെയെല്ലാം കാണാനാണെങ്കില്പ്പോലും ആ സെക്കൻറ്റില് അവടേന്ന് കാണണമെന്നു തോന്നിയാല് അന്നേരം വീഡിയോ കോള് ചെയ്യാം പെട്ടെന്ന് ഒരുവാട് ഒരു താമസമൊന്നും ഇല്ല സെക്കന്റുകൾക്കുള്ളില് വീഡിയോ കോള് ചെയ്ത് നമ്മളെ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യാന് സാധിക്കും ഇപ്പോള് പണ്ടുകാലത്ത് ഒരു മരണം യാത്ര നടന്നു മരണം നടന്നാല്പ്പോലും അതായത് ഒരു വീട്ടിലൊരു കുടുംബത്തില് ഒരു വ്യക്തി മരിച്ചുപോയാ ആ ആളെ ചിലപ്പോള് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ആൾക്ക് തിരിച്ചു നാട്ടിലെത്താന് പറ്റുന്നത് എന്നാല് ഇപ്പോള് അങ്ങനല്ല ഫോൺ ജസ്റ്റൊന്ന് ഫോണില് ഞെക്കി അന്നേരം വിളിച്ചുകഴിഞ്ഞാല് ആൾക്ക് അന്നേരെ അറിയാന്പാറ്റും പെട്ടെന്ന് നാട്ടിലെത്താന് പറ്റും അതുപോലെതന്നെ ഒരുപാട് ആപ്പുകള്

മൊബൈൽ ഫോണെന്ന് പറയുന്നത് വലിയൊരു ഉപകരണം തന്നെയാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഇപ്പോള് അതിനാത്തൂടെ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് എല്ലാം ഓക്കെ പക്ഷെ നേരിട്ട് അല്ലേ നേരിട്ട് നമുക്കു ബന്ധപ്പെടാന് പറ്റാത്തൊരു കാര്യങ്ങള് പെട്ടെന്ന് ഓൺലൈൻ വഴി നമ്മളെ പെട്ടെന്ന് കോണ്ടാക്റ്റെയ്യാനും എല്ലാം സാധിക്കും അതുമാത്രമല്ല നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്കീമുകളാണെങ്കില്പ്പോലും നമുക്ക് പെട്ടെന്നറിയാൻ സാധിക്കും അതുപോലെതന്നെ നമ്മുടേ എന്ത്വാ ബാങ്ക് ട്രാൻസാക്ഷൻ തന്നെ ഒരു രൂപ ഒര് രൂപാ തുട്ട് എത്ര വലിയ തുകയാണെങ്കില്പ്പോലും നമുക്കന്നേരെ അതിന് പൈസ ആവഴിയിൽ നമ്മള്ക്ക് പെട്ടെന്നടയ്ക്കാന് പറ്റും അതിനായിട്ട് വേറാരുവായിട്ട് ബന്ധപ്പെടോ ഒരു പ്രശ്നവും ഇല്ല ബാങ്കില്പ്പോയി കാത്ത് കെട്ടി നില്ക്കേണ്ട കാര്യമൊന്നുവില്ല എല്ലാം നമ്മുടെ കൈകളിലൂടെ നമുക്ക് ചെയ്യാന് പറ്റുന്നൊരു കാര്യവാണ്